ഹലോ ആ ക്യാബ് ഡ്രൈവറല്ലേ ആ ഞാൻ കുറച്ച് നേരം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ക്യാബ് ബുക്ക് ചെയ്യാനുണ്ടായിരുന്നു ആ അത് തന്നെ അത് തന്നെ ആ എവിടെ എത്തി താമരശ്ശേരി കഴിഞ്ഞ് കുറച്ച് ഇങ്ങ് വന്നല്ലേ ആ ഓക്കെ ലൊക്കേഷൻ ഓൾമോസ്റ്റ് എത്താറായല്ലേ ആ ഞാനിവിടെ പറഞ്ഞ ലൊക്കേഷനിൽ തന്നെ ഉണ്ട് ഞാന് കാട് മുസ്ലിം പള്ളിയുടെ അടുത്തുള്ള വെയ്റ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് പെട്ടന്ന് വരുവാണെങ്കിൽ എനിക്ക് കുറച്ച് അർജന്റുണ്ടായിരുന്നു കുറച്ച് ഫാസ്റ്റായിട്ട് വരാൻ പറ്റുമോ നിങ്ങള് പറഞ്ഞ ടൈമ് ഏകദേശം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ പെട്ടന്ന് വന്നാൽ മതി എനിക്ക് പോയിട്ട് കുറച്ച് അർജന്റ് കാര്യങ്ങള് ചെയ്യാനുണ്ട് സോ അതാണ് ആണല്ലേ അല്ല ഞാൻ നോക്കുമ്പോൾ ലൊക്കേഷനിൽ നിങ്ങൾ എത്താറായെന്ന് പറയുന്നുണ്ട് ഞാൻ കാണുന്നുമില്ല അതാണ് ഞാനീ വിളിച്ച് നോക്കിയത് ആ ഓക്കെ ഓക്കെ ആ നിങ്ങൾ എന്നാൽ പെട്ടന്ന് വരൂ കേട്ടോ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ഈ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് പോയിട്ട് കുറച്ച് അർജന്റ് ബിസിനസ്സ് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് ആ ഓക്കെ ഓക്കെ നിങ്ങളെന്തായാലും പെട്ടന്ന് വരൂ കേട്ടോ എനിക്ക് കുറച്ച് അർജന്റാണ് അതാണ് സോ നിങ്ങളെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല നിങ്ങൾ ലൊക്കേഷൻ എത്തുകയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഓക്കെ ഇല്ല പെട്ടന്ന് വരൂ പെട്ടന്ന് വരൂ കേട്ടോ